ഇപ്പോൾ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നക്ഷത്രങ്ങൾ പല രീതിയിലുള്ള നക്ഷത്രങ്ങൾ കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ വാൽ നക്ഷത്രം എന്ന് പറഞ്ഞ് കഴിഞ്ഞാലത് ഇങ്ങനെ ചലിച്ച് കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരു നക്ഷത്രത്തിൻ്റെ രൂപത്തിലൊക്കെയാണെങ്കിലും അത് പല രീതിയിലുള്ള ഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കാം കാരണം നമ്മൾ ആകെ കണ്ടിട്ടുള്ള ഭൂമിയും നമ്മളുള്ള ചുറ്റുപാടും മാത്രമാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് പിന്നെ മേലോട്ട് നോക്കിയാൽ കുറേ നക്ഷത്രങ്ങളെ പോലെയുള്ള എന്തൊക്കെയോ സാധനങ്ങളിങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുന്നു അപ്പം നമ്മളതിനെ നക്ഷത്രം എന്നുള്ള പേർ ഇട്ട് വിളിച്ചു എന്നല്ലാണ്ട് ഇത് നക്ഷത്രമാണോ എന്നുള്ള ഇതൊന്നും നമുക്ക് വലിയ കാര്യമായിട്ട് ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ നമ്മളതിനെ നക്ഷത്രം എന്ന് വിളിക്കുന്നു പിന്നെ അല്ലാണ്ട് അതിപ്പോൾ ഗ്രഹമാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വലിയ രീതിയിലൊന്നും അറിയാനൊന്നും അങ്ങനെ പറ്റില്ല കാരണം നമ്മളിതൊന്നും കണ്ടിട്ടൊന്നും ഇല്ലല്ലോ നമ്മളിപ്പോൾ ഇതെല്ലം കേട്ടറിഞ്ഞിട്ടുള്ളൊരു സത്യങ്ങൾ മാത്രമാണ് ഇപ്പം നക്ഷത്രങ്ങളാണെങ്കിൽ തന്നെ പല രീതിയിൽ ഇങ്ങനെ വേട്ടക്കാരനെ പോലെയുള്ള ചിഹ്നം അതായത് വേട്ടക്കാരൻ വേട്ടയാടുന്ന വേട്ടക്കാരനെ പോലെയുള്ള ഒരു കാര്യങ്ങളൊക്കെയുണ്ടാകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേട്ടക്കാരൻ എന്ന് പറഞ്ഞിട്ടൊരു ഓറിയോൺ എന്ന് പറഞ്ഞിട്ടൊരു നക്ഷത്ര ഫലവും കാര്യങ്ങളൊക്കെയുണ്ട്